നമ്മുടെ കേരള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് മലയാള ഭാഷ എന്തു പങ്കു വഹിക്കുന്നു എന്നു ചോദിക്കുമ്പോൾ അതില് മുഖ്യ പങ്കു വഹിക്കുന്നത് മലയാള ഭാഷയാണ് എന്നുള്ളതാണ് കാരണം മലയാളി ആദ്യമായി പഠിച്ചു വളരുന്നത് അതു മലയാള ഭാഷയിലാണ് അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ മാതൃഭാഷയായിരിക്കും പഠിക്കുന്നത് അതുകൊണ്ടുതന്നെ മലയാളികളും അവരുടെ മാതൃഭാഷയായ മലയാളമാണ് ആദ്യം പഠിക്കുന്നത് പിന്നീട് ആ മലയാളത്തിലാണ് അവർ ആദ്യ പാഠങ്ങളും ആദ്യക്ഷരങ്ങളും നുകർന്നുകൊണ്ടു തങ്ങളുടെ വിജ്ഞാന വിദ്യാഭ്യാസ മേഖലയിലേക്കു മധു നുകർന്നുകൊണ്ട് അവർ കാലെടുത്തുവയ്ക്കുന്നത് ൽ പിന്നീട് അവർ മലയാളത്തിലൂടെ സയൻസും അതുപോലെ സോഷ്യൽ സയൻസ് അതുപോലെ കണക്ക് അതുപോലെ മറ്റ് അറിവുകളെല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് അവര് ഇതെല്ലാം അവർക്ക് അനായസം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മലയാള ഭാഷയോട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അഥവാ ഇവയെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളിലൂടെയും അതേപോലെ അത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെയുമായിക്കൊണ്ടു പഠിക്കുന്നവരുണ്ടാവും പക്ഷേ അവർക്കൊക്കെ ആ ഇംഗ്ലീഷ് ഭാഷയുള്ള പുസ്തകത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നത് അത് മലയാള ഭാഷയുമായി കമ്പേർ ചെയ്തു കൊണ്ട് മലയാള ഭാഷയിലൂടെ അവർക്കു പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്കതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ കേരള സംസ്ഥാനത്തെ ഇത് ഏതൊരു സംസ്ഥാനത്തിനും അവിടുത്തെ മാതൃഭാഷയായിരിക്കാം ഏറ്റവും വലുത് അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിന് മാതൃഭാഷയായ മലയാളമാണ് എല്ലാ സ്ഥലത്തും നിറഞ്ഞുനിൽക്കുന്നത് ഏതൊരു സർക്കാർ ഓഫീസുകളില് എടുത്തു നോക്കട്ടെ അതുപോലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു സ്ഥാപനങ്ങളുമെല്ലാം മലയാള ഭാഷയ്ക്ക് അതിന്റേതായ ഒരു ഒരു മേല്ക്കോയ്മ ഉണ്ട് എന്നുള്ളതു തന്നെയാണ് കാരണം പലരും പൊങ്ങച്ചത്തിനുവേണ്ടിയും അതുപോലെ മറ്റു ചില അത്യാവശ്യഘട്ടങ്ങളിലെല്ലാം അനാവശ്യമായ ചില ഘട്ടങ്ങളിലും അവ ഇംഗ്ലീഷ് ഭാഷ അതുപോലെ മറ്റുള്ള ഭാഷയെല്ലാം താങ്ങിക്കൊണ്ട് അവരതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഒരു പൊതു പൊതുവായ ഒരു രീതി വച്ചുനോക്കുമ്പോൾ പൊതുവായ ഒരു സമവായം എടുത്തു നോക്കുമ്പോൾ അതിൽ മലയാള ഭാഷയ്ക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതിൻ്റേതായ ഒരു വലിയ പങ്കു തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാരണം മലയാള ഭാഷ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വരുന്ന ഈ ഒരു കേരള ജനത എന്നു പറയുന്നവർക്ക് വിദ്യാഭ്യാസം അന്യം നിൽക്കുന്നൊരവസ്ഥ വരും ഇത്തരത്തിലുള്ള അവസ്ഥയിൽനിന്നെല്ലാം മലയാള ഭാഷ കേരള സമുദായത്തെ രക്ഷിച്ചിട്ടുണ്ട്